അനക്ക് ഒരു അനിയനാണ് ഉള്ളത് അപ്പോൾ ഓൻ ഇപ്പം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓൻ പഠിച്ച് ഓൻ ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ ഓനെ പോലെതന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഓൻ ഒരു ജോലി ആയിട്ട് ഓൻ അവൻ്റെ പൈസയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിപ്പോൾ എൻ്റെ അനിയൻ മാത്രമല്ല എനിക്ക് ഇപ്പോൾ ഒരു അനിയത്തിയുണ്ടെങ്കിൽ അവളും പഠിച്ച് ഒരു ജോലി ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കും അവൾക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾടെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പം ചിലയിടങ്ങളിൽ ഉണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുന്നത് പതിനെട്ട് വയസ്സ് ആവേണ്ട താമസം അവരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അങ്ങ് അയയ്ക്കും പെൺകുട്ടികൾ അത്ര പഠിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ അത് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കും പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത് വളരെ കുറവാണ് പണ്ടത്തെ കാലഘട്ടത്തിലായിരുന്നു പതിനാറ് പതിനേഴൊക്കെ ആവുമ്പത്തേനും തന്നെ പെട്ടെന്ന് തന്നെ പതിനെട്ട് ആവാൻ പോലും കാത്ത് നിൽക്കില്ല പതിനേഴ് പതിനാറ് പതിനേഴിലൊക്കെ ആകുമ്പത്തേലും കല്യാണം കഴിപ്പിച്ച് അയയ്ക്കും ഈ ഒരു കാലഘട്ടത്തിലിപ്പം അത് വളരെ കുറവാണ് കൂടുതലിപ്പോൾ പെൺകുട്ടികളെ ആണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി ആയിട്ട് ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല സ്വന്തം മകൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു ആണുങ്ങളുടെ ഇതിൽ നിൽക്കേണ്ടതല്ല തൻ്റെ മകൾ എന്നുള്ള ഒരു ചിന്ത ഇപ്പോളത്തെ അച്ഛനമ്മമാർക്കുണ്ട് അതുകൊണ്ടുതന്നെ അവരെ പഠിപ്പിച്ച് ഒരു ജോലി ആക്കിയതിന് ശേഷം മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ള അച്ഛനമ്മമാരാണ് ഇപ്പോളത്തെ ഒരു കാലത്തിലുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം എന്നാലും പതിനെട്ട് വയസ്സ് അങ്ങനെ ഇരുപത് വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുന്ന ആൾക്കാരുമുണ്ട് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ പഠി പഠിപ്പിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുന്നു അങ്ങനെയുണ്ട് ഇല്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കാണ്ട് വീട്ടിൽ നിർത്തുന്നു അങ്ങനെയുള്ള ആൾക്കാരും ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് എന്നാൽ കൂടുതലും ഉള്ളവർ പഠിപ്പിക്കുന്നുണ്ട് മക്ക പെൺമക്കളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ നല്ല പ മിടുക്കുള്ളവരും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആഗ്രഹം ഇല്ല പഠിക്കാൻ ആഗ്രഹം ഇല്ലാത്തവനാണെങ്കിൽ കൂടി എന്തെങ്കിലും ചെറുതായിട്ട് പഠിപ്പിച്ച് ചെറിയൊരു ജോലിയെങ്കിലും തനിക്ക് ആവശ്യമായത് ഇപ്പം ആ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനും ഉള്ള ഒരു പൈസ കിട്ടുന്ന രീതിയിലുള്ള ജോലിയെങ്കിലും ഇപ്പോളത്തെ അവർക്കുണ്ട് അപ്പം പഠിപ്പെന്ന് പറഞാൽ ഒരു വലിയ കാര്യമാണ് പ പഠിച്ച് ജോലി നേടുക എന്നുള്ളത് എല്ലാവർക്കും പണ്ടത്തെ ഇപ്പോൾ പണ്ടത്തെ ഒരു കി കാര്യം നോക്കുവാണെങ്കിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുക അങ്ങനെയായിരുന്നു പെൺകുട്ടികളെ പഠിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു കാര്യം ഒന്നുമില്ല പെൺകുട്ടികളും മുന്നേ നിന്ന് പഠിക്കുന്നുണ്ട് ആൺകുട്ടികളേക്കാൾ കൂടുതലിപ്പോൾ പെൺകുട്ടികളായിരിക്കും കൂടുതൽ പഠിച്ച് ഒരു ജോലി വാങ്ങണം എന്ന് ആഗ്രഹം ഒക്കെ ഉള്ളത് കാരണം അവർക്ക് ഒറ്റ കാലിൽ നിൽക്കുക അവരുടെ സ്വന്തം കാലിൽ നിൽക്കുക് എന്നുള്ളത് പെൺകുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നാൽ ചില പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തവരുമുണ്ട് എല്ലാം മൊത്തത്തിൽ അങ്ങനെ പറയുന്നില്ല ആഗ്രഹം ഇല്ലാത്തവരും ഉണ്ട് അപ്പം അവർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോവണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട് അവരങ്ങനെ ചെയ്യും അത് അവരുടെ ഇഷ്ടം പക്ഷേ ഇപ്പോളത്തെ അധികം പേർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കല്യാണം കഴിക്കേണ്ട പെട് പഠിക്കണം ജോലിയാക്കണം എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇപ്പം വ് വിദ്യാഭ്യാസം ഉള്ളവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാം അപ്പോൾ ഇപ്പോളത്തെ കാലത്ത് അങ്ങനെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതില്ല എല്ലാവരെയും പഠിപ്പിക്കുന്നു ജോലി ആക്കിക്കൊടുക്കുന്നു